ഹലോ അഭിനെ അത് ആ ഞാൻ പിന്നെ ഞാൻ പിന്നെ കളി കാണാതിരിക്കുമോ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കളി കാണാതിരിക്കും എന്ന് അയ്യോ ചുമ്മാ എൻ്റെ പൊന്നേ ഉയ്യോ ഫൈനൽ എന്നൊക്കെ പറഞ്ഞാൽ യ്യോ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു കളി ഓ സത്യം പക്ഷേ അവന്മാർ കമ്പാക്ക് വന്നു ആ കമ്പാക്ക് ഭയങ്കര ഒന്നൊന്നര കംബാക്ക് യ്യോ അയ്യോ ഭയങ്കര സീനായിരുന്നു അവൻ ഞാൻ ഓർത്തു അവസാനം മറ്റെ ആ ഞാൻ കട്ടപ്പനയിലാ ഉണ്ടായിരുന്നത് അയ്യോ ഞാൻ ഉയ്യോ അതൊക്കെ ചുമ്മാ എൻ്റെ പൊന്നേ അതെ സത്യമായിട്ട് അത് പിന്നെ എല്ലാം ഊക്കിലല്ലേ ഫസ്റ്റ് കളി തോറ്റെന്ന് പറഞ്ഞപ്പത്തേക്ക് അവന്മാർ കളിയാക്കാൻ തുടങ്ങിയില്ലേ അതെ ഞാനോർത്തു നീ ഞെട്ടുന്നില്ലേ നമ്മളൊക്കെ അർജൻ്റീന ഫാൻസ് അല്ലേ അത് നമുക്ക് അത് ഏറ്റവും കൂടുതൽ നാണംകെട്ടത് പോർച്ചുഗൽ ഫാൻസിൻ്റെടയ്ക്കാ പക്ഷേ പോർച്ചുഗലിൽ എന്നാലും പക്ഷേ റൊണാൾഡോയ്ക്ക് ഒരു ഭയങ്കര ഇതില്ലേ റൊണാൾഡോടെ ഇത് വെച്ച് പക്ഷേ കിട്ടിയില്ല അതെ നമുക്ക് ഇല്ല അതെ അതാണ് മെയിൻ അവന്മാർ ചുമ്മാ ഇട്ട് കളിയാക്കും അതെ ഉയ്യോ അത് വേറൊരു ലെവല് സാധനം ഭയങ്കര ഡ്രീമ് ആയിരുന്നു മെസ്സീടെ ഒരു ഡ്രീമ് അല്ലായിരുന്നോ അത് അതെ ഞാൻ ഞാൻ എന്തായാലും പറയും ഉറപ്പായിട്ടും ആ വർഷാവസാനം നമുക്കൊരു കിടിലം സാധനം തന്നിട്ടാ പോയത് ഒരു വിഷയം ആയി പക്ഷെ ആ പക്ഷെ അവസാനെത്തെ ആ കളി തോറ്റപ്പോൾ അവന്മാരുടെ കുത്തലിനുള്ള എല്ലാ ഇത് അതെ അതെ പക്ഷെ ഇല്ലെടാ ഈ ഫസ്റ്റ് നമ്മൾ സൗദി ആയിട്ട് പൊട്ടിയില്ലേ ആ സൗദി ആയിട്ട് പൊട്ടിയപ്പം അവന്മാരുടെ ഷോയോ ഭയങ്കര ഷോ നിങ്ങൾക്ക് കളിക്കാൻ അറിയത്തില്ല മെസ്സിക്ക് ആ ഭയങ്കര ഇത് അതെ പക്ഷേ അതിനുള്ള എല്ലാ തിരിച്ചടിയും കിട്ടി അതാ അതാ അതായിരുന്നു വേണ്ടത് വേണ്ടതെല്ലാം അവിടെ സെറ്റ് ആക്കി സത്യം അയ്യോ ഇനി ഇനി ഇനി ഇനി സന്തോഷിക്കാം ഇന്നത്തെ ദിവസം അതെ അയ്യോ വിഷയമായിരുന്നു അതൊക്കെ എൻ്റെ പൊന്നേ പക്ഷേ മെസ്സിക്കാ ഗോൾഡൻ ബൂട്ടുംകൂടി ഉണ്ടെങ്കിൽ വലിയൊരു സെറ്റപ്പ് ആയേനെ ഒരു ഒരു ഗോളിന് അല്ലേ പോയത് ആ മറ്റെ അവസാന എംബാപ്പേടെ ആ മൂന്ന് ഗോള് അതുകൊണ്ട് മാത്രമാ മെസ്സീടെ കയ്യിൽനിന്ന് അത് പോയത് അല്ലെങ്കിലത് ഗോൾഡൻ ബൂട്ട് ആ ബെസ്റ്റ് പ്ലെയർ അതെ എല്ലാം നമുക്ക് കിട്ടി ആ ഗോൾഡൻ ബൂട്ട് ഒഴിച്ച് ബാക്കി എല്ലാം നമ്മുടെ കയ്യിലാ മറ്റെ എമെർജിങ് പ്ലേയർ അതെ സത്യം അത് അതായിരുന്നു വേണ്ടത് ഇല്ല എല്ലാം അതെ കോപ്പ അമേരിക്ക ജയിച്ചു അതെ എല്ലാ കിട്ടാനുള്ളത് കിട്ടി അതെ ക്യാപ്റ്റൻ അതെ അതെ ഇതൊക്കെയായിരുന്നു വേണ്ടത് വേണ്ടതല്ലേ അയ്യോ അത് വേറെ ലെവല് ആയിരുന്നു ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു അത് അവിടെ പോയിട്ട് ആ ബിഗ് സ്ക്രീനിൽ ഇരുന്ന് കാണുന്നതും അതെല്ലാം സെറ്റ് ആ വൈബ് എവിടെയും കിട്ടത്തില്ല ഉയ് ഉയ്യോ അത് ഭയങ്കര കംബാക്കു ആയിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ആയിരുന്നു അവന്മാരെ കംമ്പാക്ക് ഒരിടത്തും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല അതെ എന്തായാലും ഫൈനലും അടിച്ചു നല്ല കിടിലം പരിപാടിയായിരുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ഇനി അതെ അതെ ഇനി അടുത്തവർഷം ഉണ്ട് എന്നാൽ ശരി എന്നാൽ ഓക്കേ ബൈ ബൈ ഓക്കെ ശരി എന്നാൽ റ്റാറ്റാ ആ ഓക്കെ ആ ശരി എന്നാൽ